നിങ്ങളുടെ രേഖകളെല്ലാം സ്വത്തു രേഖകളെല്ലാം സൂക്ഷിക്കുന്നത് പിന്നെ ഡിജിലോക്കറിൽ ആണല്ലോ അത് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചെയ്തു പരിചയമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എനിക്കു ഇത് പോലെ എൻ്റെ സ്വത്ത് രേഖ ഡോകുമെൻ്റ് ആ എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിജിലോക്കറിൽ നിന്ന് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതിന് എനിക്ക് അതിൻ്റെ വേണ്ടുന്ന സാധനം അത് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് പങ്കു വച്ചു തരികയാണെങ്കിൽ അത് എനിക്ക് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു ഉപകാരപ്രദമാണ് അത് കൊണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് അതിന് ഞാൻ എന്തെല്ലാം നടത്തിപ്പുകൾ ചെയ്യണം ആരെയൊക്കെ സമീപിക്കണം അതിന് അതിൻ്റെ നടപടി ക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുകയാണെങ്കിൽ അത് ഉപകാരപ്രദമാണ് എനിക്കും സുരക്ഷിതമായി അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒത്തിരി സേഫ് ആണല്ലോ അങ്ങനെയുള്ള സുരക്ഷിതത്വം കിട്ടുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ് ആദ്യം ചെയ്യേണ്ടത് എന്താണ് രണ്ടാമത് പിന്നീട് ചെയ്യേണ്ടത് എന്താണ് അത് എത്ര നാളത്തേക്കാണ് എന്തിനൊക്കെ അതിന് എന്തെല്ലാം സാമ്പത്തിക ഇടപാടുകളുണ്ട് അല്ലെങ്കിൽ ആരെയൊക്കെ സമീപിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദാംശത്തോട് കൂടെ പറഞ്ഞു തരികയാണെങ്കിൽ അത് ഒത്തിരി ഉപകാരപ്രദമാണ് നമുക്ക് എൻ്റേത് എനിക്ക് സൂക്ഷിക്കാൻ ഉള്ള ഒരു അവ സാങ്കേതികത്വം മനസിലാകുകയും ചെയ്യാം ഒപ്പം എനിക്ക് ഇതുപോലെ മറ്റുള്ളവരെ എനിക്ക് പറഞ്ഞു മനസിലാക്കി കൊടുക്കുവാനും എനിക്ക് അത് ഒന്ന് വശമാവുന്നത് എന്തുകൊണ്ടും ഔചിത്യമാണ് അപ്പോൾ ആ കാര്യങ്ങൾ എനിക്ക് ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഒരു വീട്ടിലാണെങ്കിലും ലോക്കറിലാണെങ്കിലും അത് അതുപോലെയുള്ള എന്ത് ചെയ്യുന്നതിന് ഇത് ആവശ്യമാണല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അത് ഒത്തിരി അനിവാര്യമാണ് നമുക്ക് സുരക്ഷിതത്വമാണല്ലോ നമ്മുടെ രേഖകളെല്ലാം സുരക്ഷിതത്വത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ആ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ചെയ്തു പരിചയമുള്ളവരോട് ചോദിക്കുന്നതാണ് നമുക്ക് കാര്യങ്ങൾക്ക് എളുപ്പം സമയം ലാഭം തന്നെയല്ല ഒരുപാട് പേരുടെ അടുക്കൽ പല കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു നടക്കുന്നതും എല്ലാം ചെയ്തു പരിചയമുള്ള ഒരാളോട് ചോദിച്ചു മനസിലാക്കുന്നതുമായിട്ട് രണ്ടും രണ്ടാണ് വ്യത്യസ്ഥതയുണ്ട് അപ്പോൾ ചെയ്തു പരിചയമുള്ളവർക്ക് അത് ചെയ്യേണ്ട രീതികളെല്ലാം പറഞ്ഞു തരാൻ സാധിക്കും അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടി വിശ്വസ്താപൂർവ്വം ചോദിക്കുകയാണ് അത് ചെയ്യേണ്ട രീതികളും സമീപിക്കേണ്ട ആളുകളും ചെയ്യേണ്ടതിൻ്റെ നടപടി ക്രമങ്ങളും അല്ലെങ്കിൽ ചെയ്താൽ അതിൻ്റെ സുരക്ഷിതത്വത്തിനെ ഉറപ്പാക്കുന്നതും ഒക്കെ ഒരു വിശ്വസ്തത പൂർവ്വം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വിശ്വസ്തതയോടു കൂടി അത് ലഭിച്ചാൽ പിന്നീടും നമുക്ക് ആ വിശ്വസ്തത തന്നെ പാലിച്ചു കൊണ്ട് മറ്റുള്ളവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കുവാനുണ്ട് സഹായകമാവും അപ്പം ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് അപകടങ്ങൾ ഒരുപാട് പതിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ നമുക്ക് ഈ ഒരു യുഗത്തിൽ ഇതാവശ്യമാണ് ഈ അതുകൊണ്ട് ആളുകളെ നമുക്ക് അറിയുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്നവർക്ക് അറിഞ്ഞു പറഞ്ഞു കൊടുക്കുവാനുമൊക്കെ നമുക്ക് ഇത് സഹായകമാണ് സഹായകമാവും അപ്പോൾ ആ ഒരു സഹായമാണ് ഞാൻ ഇതിനകത്ത് ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് ഒന്ന്

അപ്പോൾ അതുകൊണ്ട് സഹായിക്കണമേ